എന്നോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഞാൻ എങ്ങനെയാണ് ഒരു ഗാലാപന പരിപാടിക്ക് അല്ലെങ്കില് ഒരു റെക്കോഡിങ് സെഷന് ഒരുങ്ങുന്നത് എന്നാണ് എനിക്ക് പാട്ട് പാടാൻ താൽപര്യമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഗാനാലാപന പരിപാടിക്ക് അല്ലെങ്കില് റെക്കോഡിങ്ങിന് പോവാറുണ്ട് എന്നൊരിക്കലും അത് അർത്ഥമാക്കുന്നില്ല എന്നാൽ എനിക്ക് പറ്റുന്ന തരത്തിൽ ഞാനത് എൻറ്റൊരു ഊഹം വെച്ച് ഞാൻ ഇത് പറയാൻ ശ്രമിക്കാം ഗാലാപന പരിപാടിക്ക് ഒരാള് തയ്യാറാവുകയെന്നു പറയുമ്പോള് ആദ്യം കോട്സ് കറക്റ്റാണോന്ന് നോക്കും അവരുടെ ഒന്നുരണ്ട് വട്ടം അവര് പാടിനോക്കും അതേ ശ്രുതിയും ഈണവും ഒക്കെ കറക്റ്റാണോ എന്ന് അറിയാന് വേണ്ടി അവരെക്കൊണ്ട് ഒന്നുരണ്ടു വട്ടം പാടിച്ച് നോക്കാറുണ്ട് അതോടൊപ്പം തന്നെ അവിടെ മറ്റു ഇൻസ്ട്രുമെൻസ് വായിക്കുന്നവരും അതിനനുസരിച്ച് അവരുടെ ഗിറ്റാര് പിയാനോ വയലിൻ ഇതിനെയൊക്കെ ട്യൂണ് ട്യൂൺ ചെയ്യുന്നതാണ് ആദ്യമേ അവര് ചെയ്യുക പിന്നെ പ്രൊഡ്യൂസര് അത് ഒന്നുരണ്ടു വട്ടം ഇവരെക്കൊണ്ട് വായിപ്പിച്ച് നോക്കും അതായത് പാട്ട് പാടുന്ന ആള് പാടിത്തുടങ്ങുമ്പോള് വ്യത്യാസം വരാതെ ഇരിക്കാനായി അത് ഒന്നുരണ്ടു വട്ടം അവര് പ്ലേ ചെയ്ത് എത്രത്തോളം പിച്ച് ഉണ്ട് എത്രത്തോളം അത് കോഡ് കറക്റ്റായി പോവുന്നുണ്ട് ശ്രുതി എത്രയാണ് പല്ലവി അനുപല്ലവി അതൊക്കെ കറക്റ്റായിട്ട് ആണോ ഇതുമായി ഒത്തുചേർന്ന് വരുന്നത് എന്നൊക്കെ നോക്കാറുണ്ട് അത് കഴിയുമ്പോഴാണ് പാട്ട് പാടുന്ന ആള് അതിലേക്ക് വരിക കാരണം ഇത് ഇത്രയും കറക്റ്റായാൽ മാത്രമേ ഒരു റെക്കോഡിങ് സെഷൻ നേരെ തുടങ്ങാന് കഴിയുകയുള്ളൂ പാട്ട് പാടുന്ന ആള് പാടുന്നത് അവരുടെ പിച്ച് കറക്റ്റായിരിക്കണം അവര് ഒന്നുരണ്ടു വട്ടം പാടി നോക്കുമ്പോഴും വരികൾക്ക് സ്പുടത ഉണ്ടായിരിക്കണം ശ്രുതി ശ്രുതി ബോക്സില് അവരുടെ പിച്ചിനനുസരിച്ച് ശ്രുതി ബോക്സ് അഡ്ജസ്റ്റ് ചെയ്ത് അവര് ഒന്നു രണ്ടു വട്ടം അത് പാടിനോക്കും പാടിനോക്കി കഴിഞ്ഞതിന് ശേഷം മ്യൂസിക് പ്ലെയറില് അതിനെ ഇട്ട് ഒന്നുകൂടെ ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ടും ഇവരുടെ സൗണ്ടും ഒരേ ഇതിലാണോ പോകുന്നത് പാടുന്ന ആളുടെ ശബ്ദം അതില് സ്പുടതയോടെ കേള്ക്കാന് കഴിയുന്നുണ്ടോ എന്ന് എല്ലാം നോക്കി അത് ഉറപ്പാണെങ്കിൽ മാത്രമാണ് ഒരു റെക്കോഡിങ് സെഷൻ കംപ്ലീറ്റായി എന്ന് പറയാൻ കഴിയുന്നത് വളരെ അധികം സമയമെടുക്കുന്ന ഒരു കാര്യമാണ് റെക്കോഡിങ് സെഷൻ എന്ന് പറയുന്നത് കാരണം ഒരോ വട്ടം ഓരോ ഇൻസ്ട്രുമെൻസിൻറ്റേയും ബാലൻസ് ചെക്കിയ്യണം ഏതേലും ഒരെണ്ണത്തില് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കംപ്യൂട്ടറില് കാണാന് കഴിയും അത് വ്യത്യാസം വരുന്നതിനനുസരിച്ച് അപ്പോള് അത് അഡ്ജസ്റ്റ് ചെയ്ത് അതിന് പുറകേ ഒരുപാട് ടീമംഗങ്ങള് വർക്കെയ്യുന്നൊരു സംഭവമാണ് ഒരു റെക്കോർഡിങ് സെഷൻ എന്ന് പറയുന്നത് ഒത്തിരി ആളുകള് അതിന് പുറകേ നടന്ന് കഷ്ടപ്പെട്ട് എടുക്കുന്ന ഒരു സംഭവമാണ് ഒരു റെക്കോർഡിങ് സെഷൻ അപ്പോള് എൻ്റെ പരിമിതമായ അറിവിൽ ഇങ്ങനെ ആണ് ഒരു ഗാനാലാപന പരിപാടിക്കോ അല്ലെങ്കില് റെക്കോഡിങ് സെഷനോ വേണ്ടിയിട്ട് ആൾക്കാര് ഒരുങ്ങുന്നത്